എനിക്ക് പൊതുവെ താൽപര്യം ചിത്രം വരയോടായിരുന്നു ഞാനെൻ്റെ ഫ്രീയായിട്ടുള്ള ടൈമൊക്കെ ചെലവഴിച്ചിരുന്നത് ചിത്രം വരച്ചോണ്ടാണ് പിന്നീട് എനിക്ക് പാടാൻ വളരെ ഇഷ്ട്ടമാണ്

സൊ ജോലിയല്ലാതെയിരിക്കുമ്പോൾ ചിത്രം വരക്കാറുണ്ട് പാട്ട് പാടാറുണ്ട് വണ്ടിയോടിക്കാറുണ്ട് അതുപോലെ അഭിനയിക്കാറുണ്ട് സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നീട് പിന്നീട് എനിക്കുള്ള ഇഷ്ട്ടപെടുന്നൊരു കാര്യം എന്താന്നുവച്ചിട്ടുണ്ടെങ്കിൽ പാചകം ചെയ്യുമ്പോയും ഇഷ്ട്ടപ്പെട്ട ഭക്ഷണം ഇഷ്ട്ടത്തോടെ കുക്ക് ചെയ്യുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്